ഞങ്ങളുടെ പ്രദേശത്തെ പരമ്പരാഗത കളികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടിയും കോലും എന്ന് പറഞ്ഞ നമ്മൾ കളിച്ചു കൊണ്ടിരുന്ന നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കളിച്ചു കൊണ്ടിരുന്ന ഒരു ഗെയിമാണ് കുട്ടിയും കോലും അത് കളിക്കുന്നതെന്ന് വച്ചാൽ ഒരു രണ്ട് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഒന്ന് കുട്ടിയും ഒന്ന് കോലും അതിൽ കുട്ടി എന്ന് പറയുന്നത് ചെറിയ ഒരു ചെറിയ സ്റ്റിക്കും കോലെന്ന് പറയുന്നത് കുറച്ചു കൂടെ ബിഗ്ഗെറായിട്ട് വലുതായിട്ടുള്ള ഒരു ലോംഗായിട്ടുള്ള ഒരു സ്റ്റിക്ക് ആണ് അപ്പം ഈ കുട്ടിയും കോലും നമ്മൾ കളിക്കുന്നത് അത് ഒരു കുഴിയിലേക്ക് പ്ലേസ് ചെയ്യും ആ കുഴിയുടെ മേളിലേക്ക് നമ്മൾ ഈ കുട്ടി പ്ലേസ് ചെയ്യും അത് നമ്മൾ എന്നിട്ട് കോൽ കൊണ്ട് തോണ്ടി ദൂരേക്ക് എറിയും അപ്പം അത് സിംഗിൾസ് ആയിട്ട് കളിക്കാം അല്ലെങ്കിൽ ടീം ആയിട്ടോ എങ്ങനെ വേണേ നമുക്ക് കളിക്കാം അപ്പം നമ്മൾ ഈ കുട്ടി ഈ കോരി വിടുന്ന കുട്ടി എതിർ ടീമ് ക്യാച്ച് പിടിക്കുകയോ ക്യാച്ച് പിടിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ കളി അവർര് ഒരിക്കലും ക്യാച്ചി ഇട്ട് കൊടുക്കരുത് എന്നിട്ട് അവർ അവിടെ നിന്ന് ആ കുട്ടി നമ്മുടെ ഈ കുഴിയിലേക്ക് അവർ എറിയും അപ്പം കുഴിയുടെ പരിസരത്ത് ആ കുട്ടി വീണു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാണ് അപ്പം ആ കുട്ടി കുഴിയുടെ ഭാഗത്ത് വീഴാതിരിക്കാനായിട്ട് നമ്മുടെ കൈയിലുള്ള കോൽ ഉപയോഗിച്ചു കൊണ്ട് നമ്മൾ അതിനെ തട്ടി തെറിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഗെയിമ് അപ്പം നമ്മൾ ഈ തട്ടി തെറിപ്പിക്കുന്ന കുട്ടി എത്ര ദൂരത്തിൽ പോയി വീഴുന്നോ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കൈയിലുള്ള കോൽ കൊണ്ട് ഈ കുഴി വരെ എണ്ണാം അപ്പോൾ അത്രയും പോയിൻസ് നമുക്ക് ലഭിക്കും അപ്പം അങ്ങനെ ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ പോയിൻസ് നേടുക അവരാണ് ഈ കളിയിലെ വിജയി അപ്പം കുട്ടിയും കോലും നമ്മൾ കൊച്ചിലെ മുതൽ കളിക്കുന്ന ഗെയിമാണ് അത് ടീമായിട്ട് കളിക്കാം അല്ലാതെയും കളിക്കാം പിന്നെ നമ്മളെ കാലത്ത് കളിച്ചു കൊണ്ടിരുന്ന ഒരു പരമ്പരാഗത ഗെയിമുകളിൽ ഒന്നാണ് സെവൻസ് എന്ന് നമ്മൾ പറയുന്നത് അതായത് നമ്മൾ ഒരു ഏഴ് അക്കോണ്ട് കളിക്കുന്ന ഒരു ഗെയിം ആ ണ് ഏഴ് പീസ് അതായത് എന്തിനേലും കല്ലിൻ്റെ പീസോ സ്ലേറ്റ് പോലത്തെ പരന്ന അത്യാവശ്യം പരന്ന ഒരു ഏഴ് കട്ടകളെടുക്കുക അത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഏഴെണ്ണം അടുക്കി വയ്ക്കുക അപ്പം നമ്മൾ രണ്ട് ടീമായിട്ടാണ് കളിക്കുന്നത് അപ്പം രണ്ട് ടീം ആയിട്ട് കളിക്കുമ്പോഴത്തേക്കും ഒരു ടീം ആദ്യം ഒരു നിശ്ചിത ദൂരത്ത് നിന്ന് നമ്മൾ ഈ അടുക്കി വച്ചിരിക്കുന്ന ഈ സെവൻസിലേക്ക് നമ്മൾ ഒരു ബോൾ ഉപയോഗിച്ച് എറിയുന്നു അപ്പം നമ്മൾ ഈ എറിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബോള് തട്ടി ഈ സെവൻസ് ഏഴ് കല്ല് നിലത്ത് വീഴും അപ്പം നമ്മൾ നിലത്ത് വീണ കല്ല് പിന്നെ തിരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ ഡ്യൂട്ടി അപ്പം നമ്മൾ ആ തിരിച്ച് വയ്ക്കാനെടുക്കുന്ന ഇതിനുള്ളിൽ ഈ നമ്മളെ എറിഞ്ഞ ആ ബോള് കൊണ്ട് തന്നെ നമ്മുടെ ടീമിൻ്റെ ആറ്ടേലും ദേഹത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഏറ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ആവും നമ്മൾ ഏറ് കൊള്ളാതെ നമ്മൾ ഈ ഏഴ് കല്ലും തിരിച്ച് നമ്മുടെ നിശ്ചിത സ്ഥാനത്ത് സെവൻസ് ആയിട്ട് വയ്ക്കുന്നതാണ് കളി അപ്പം ഈ ഏറ് കൊണ്ട് നമ്മൾ എറിയുന്ന ഇപ്പം സെവൻസ് വയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് ഏറ് കിട്ടുകയാണെങ്കിൽ നമ്മളെ ടീം ഔട്ട് ആവും അപ്പം അങ്ങനെയാണ് നമ്മൾ സെവൻസ് കളിച്ചു കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ പാരമ്പരാഗതായിട്ട് കളിച്ചു കൊണ്ടിരുന്ന അക്ക് കളിയുണ്ട് അതായത് ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ഒരു ചെറിയ കല്ലിൻ്റെ പീസ് ഇടുക്ക എന്നിട്ട് നമ്മൾ ഒറ്റക്കാലിൽ ചാടിപ്പോയി അതിലേക്ക് എത്തുക എന്നുള്ളതാണ് അക്ക് കളിയുടെ മെയിൻ ഇത് പിന്നെ നമ്മൾ കണ്ടവന് ഏറ് കളിച്ചിട്ടുണ്ട് കണ്ടവൻ ഏറ് അതൊരു പരമ്പരാഗത കളി അതായത് നമ്മൾ അതും ടീമായിട്ട് തന്നെ കളിക്കുന്നതാണ് അപ്പം നമ്മടേലൊര് ബോൾ ഉണ്ടാവും ഇപ്പം രണ്ട് ടീമാണ് അപ്പം എറിഞ്ഞ് കളിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ആ ബോള് കൊണ്ട് കണ്ടവനെ എറിയുക എന്നുള്ളതാണ് ഗെയിം ഇപ്പം അത് ആരെ എതിർ ടീമുകളുള്ള ആളുടെ ദേഹത്ത് ബോൾ എറിഞ്ഞ് കൊള്ളിക്കുക എന്നുള്ളതാണ് അപ്പം ആ ഗെയിമ് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം ആണ് കാരണം നമ്മുടെ പാങ്ങിന് ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്കുള്ള ഏറ് അവന് കൊടുക്കും അപ്പം ആ ഒരു ഗെയിമ് നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടിരുന്ന ഒരു ഗെയിം ആണ് പിന്നെ നമ്മൾ ഗോലി കളിക്കാറുണ്ട് ഗോലീന്നെച്ചാ നമ്മൾ ഈ കല്ല് കെട്ട് കളിയാണ് വട്ട് കളി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ അപ്പം അത് നമ്മൾ ചെറിയ ഗോലി എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചു കൊണ്ടാണ് അതൊരു ഒരു കുഴിയിൻ കുഴി കുഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കൈ കൊണ്ട് തട്ടി ഇടുന്ന ഒരു ഗെയിമാണ് ഗോലി കളി അഥവാ കൽവെട്ട് കളി എന്ന് നമ്മൾ പറയുന്നത്